പാട്ടെന്നു പറയുന്നതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതു കൊണ്ടു തന്നെ ഞാന് പാടുമ്പോൾ അതിലലിഞ്ഞു ചേര്ന്നാണ് പാടുന്നത് ഞാനാ പാട്ടിനെ സ്നേ ആ ആ ഒരു പാട്ടിനെ സ്നേഹിച്ചതലിന് അതിലലിഞ്ഞു ചേര്ന്ന് ഞാന് പാടുമ്പോൾ പാടുമ്പോൾ എന്റെ ശരീരവും എന്റെ കൈകളും ഒക്കെ ആ പാട്ടിലേക്കലിഞ്ഞു ചേരും അതിലൂടെ എനിക്കെന് എനിക്കാസ്വാദകരെ കൂടുതൽ സന്തോഷിപ്പിക്കാനും എനിക്ക് എനിക്ക് കൂടുതല് എന്താ അറിഞ്ഞാൽ പാട്ടിന്റെ വരികളറിഞ്ഞു പാടാനും അതിൽ മുഴുകി പാടാനും സാധിക്കും ഒരു പാട്ടിനെ നമ്മളറിഞ്ഞു പാടുമ്പോൾ ആ പാട്ടിനെ ഇസ് ഇഷ്ടപ്പെട്ട് നമ്മൾ പാടുമ്പം ആ പാട്ടില് നമ്മള് മുഴുകിപ്പോകും അതിലൂടെ ആ പാട്ടിന് നമ്മള് മുഴുകുമ്പോൾ അതിൽ ആ ആ പാട്ട് കേൾക്കുന്ന ഫീൽ വേറെയായിരിക്കും അപ്പം അതിലൂടെ കേൾക്കുന്ന ആള്ക്കാര്ക്കും പാടുന്ന നമ്മള്ക്കും ഒരു സന്തോഷം ലഭിക്കും എന്നാണ് എന്റെയൊരു ഇത്